എനിക്ക് വരക്കുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന കാര്യമാണ് പക്ഷേ എന്നു വെച്ച് ഞാൻ എല്ലാ ദിവസവും ഒന്നും വരക്കലില്ല ഇപ്പം ഞാൻ പഠിച്ച് കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ദിവസങ്ങളുണ്ടാകും അപ്പം നമുക്ക് എന്നും ഇതേപോലെ വരക്കാനൊന്നും പറ്റണമെന്നില്ല പക്ഷേ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം നമ്മൾ കണ്ണ് കേടാകുന്ന ഫോൺ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളിതേപോലെ നമ്മളുടെ മനസ്സും ശരീരവും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന കലകളെ പ്രോത്സാഹിപ്പിക്കുന്നത് വളരെ നല്ല കാര്യമാണ് അതുകൊണ്ടാണ് പ്രത്യേകമായി എനിക്ക് വരയോട് ഒരുപാട് സ്നേഹമുള്ളത് കാരണം ഞാൻ നോക്കി വരക്കുന്ന ആളല്ല ചിന്തിച്ച് വരക്കുന്ന ആളാണ് എൻ്റെ മനസ്സിൽ കാണുന്ന ചിത്രങ്ങളെ ഞാൻ ഒരു പേനയും പെൻസിലും ഉപയോഗിച്ച് കടലാസ്സിൽ വരച്ച് കൂട്ടുന്ന ഒരാളാണ് അപ്പം നമുക്ക് വരക്കാൻ തോന്നുന്ന ദിവസങ്ങളും അല്ലാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ നമ്മളത് തോന്നുന്ന ദിവസം നന്നായി വരക്കാനുള്ളതാണ് തോന്നുന്നില്ലെങ്കിൽ അത് നിർബന്ധമായി വരക്കേണ്ട ആവശ്യമില്ല കാര്യം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യത്തെ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല നമുക്കെന്താ തോന്നുന്നത് അന്ന് ഞാൻ വരക്കുന്നതിൽ ഞാനൊരു നൂറ് ശതമാനം കൊടുത്ത് വരക്കും ഞാൻ വരക്കുന്നത് ഏറ്റവും ചെറിയ ഒരാപ്പിൾ ആണെങ്കിൽ പോലും അതിൽ ഞാൻ നൂറ് ശതമാനം വളരെ വൃത്തിക്ക് ചെയ്യും എന്ന് ഉറപ്പ് തീരുമാനിച്ച് കൊണ്ട് ചെയ്യുക അതാണ് ഞാൻ പറയുന്നത്